അതെ വീട്ടിലൊരു സത്ക്കാര പരിപാടി ഉണ്ടായിരുന്നു ഒരു പത്ത് നൂറ്റൻപത് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം വന്നിരുന്നു അതിന് വേണ്ടി തലേന്നു തന്നെ എല്ലാവരും ഒരുങ്ങിയിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങാടിയിൽ പോയി വാങ്ങിക്കാനും അത് വേടിച്ച് വീട്ടിൽ കൊണ് കൊണ്ടു വരാനും ഒക്കെ ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താ വെച്ചാൽ അരി പച്ചക്കറി അതുപോലെ പലചരക്ക് സാധനങ്ങൾ ഇറച്ചി ഫ്രൂട്ട്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ ലിസ്റ്റ് ആദ്യം തയ്യാറാക്കിയിരുന്നു ഇത്ര പേർക്ക് വേണം എത്ര ആൾക്കാർക്ക് വേണമെന്നുള്ള ഫുഡിൻറ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നു അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് പിറ്റേ ദിവസം അതിരാവിലെ തന്നെ അതിനുള്ള ഭക്ഷണങ്ങൾ പാകം ചെയ്യാനുള്ള ഒരുക്കത്തിൽ ആയിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായി തുടങ്ങി ആദ്യം വെൽക്കം ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആയി ചെയ്ത് വെച്ചിരുന്നു അതിന് ശേഷം പിന്നെ ഉച്ചക്ക് ഉച്ച ഭക്ഷണം കഴിക്കാനുള്ള ഉച്ച ഭക്ഷണത്തിന് വേണ്ടി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ റൈസ് ചിക്കൻ ഫ്രൈ ഫ്രൂട്ട്സ് സാലഡ് ഡെസേർട്സ് അങ്ങനെ അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഭയങ്കര സന്തോഷത്തിലും ഉള്ള ഒരു പരുപാടിയായിരുന്നു കുട്ടികളും വലിയവരും ഒക്കെയായി എല്ലാവരും കൂടി നന്നായി ആഘോഷിച്ച ഒരു ഫങ്ഷനായിരുന്നു എല്ലാവരെയും ഒരിക്കൽ കൂടി അങ്ങനെയൊക്കെയൊരു ഓരോ ഫങ്ഷനുണ്ടാകുമ്പോൾ നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലെല്ലാവരും വീട്ടിൽ ഒതുങ്ങി കൂടുന്ന ഒരു ചുറ്റുപാട് ഇങ്ങനെ ഓരോ അവസരങ്ങൾ വരുമ്പോൾ എല്ലാവരും ഒന്ന് ഓരോ വട്ടം കാണാനും ആശയ വിനിമയം നടത്താനൊക്കെ പറ്റിയ നല്ലൊരു അവസരം ആയിരുന്നു എല്ലാവർക്കും സന്തോഷം നൽകിയിരുന്ന ഒരു ദിനമായിരുന്നു കൂട്ടം കുടുംബങ്ങളും എല്ലാം ഒത്തുകൂടി ആടിപ്പാടി ഉല്ലസിച്ച് നല്ല അടിപൊളിയായി കൊണ്ട് നടന്ന ഒരു ദിനമായിരുന്നു